കർഷകർക്ക് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന മറ്റ് സംരംഭങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പച്ചക്കറികൾ വിൽപ്പന അല്ലെങ്കിൽ ചെറിയ ഒരു കുമ്മിട്ടി കട പോലെ തുറന്നിട്ട് അത് വില്പന ചെയ്യാം പിന്നത് അതുപോലെ വിത്തുകൾ വിൽപ്പന അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെതന്നെ പാട്ടകൃഷി ഇപ്പോൾ കർഷകർക്ക് അതിൻ്റെ കൂടെ പാട്ടം ഇപ്പോൾ ഒരു സ്ഥലം പാട്ടത്തിനെടുത്ത് അതിലെ സാധനങ്ങളൊക്കെ പിന്നെ പറിച്ചു വിൽപ്പന ചെയ്യാം അങ്ങനെ ഒരുപാട് പാട്ട കച്ചവടം ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെതന്നെ കർഷകർക്ക് കൂടുതലും ഇപ്പോൾ ഒരു എല്ലാ കൃഷി ചെയ്യുന്നതും ഇഷ്ടമായിരിക്കും ഇപ്പോൾ തെങ്ങ് കൃഷി ചെയ്യുന്നതും അതുപോലെ നെല്ല് ചെയ്യുന്നതും അവർക്ക് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഭൂമി കിട്ടിയാൽ തന്നെ അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമായിരിക്കും പിന്നെ പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വിൽപ്പന ചെയ്യാനും പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും